ആ ആ ഞാൻ അഖിലയാണ് എൻ്റെ എൻ്റെ ഏട്ടനു വേണ്ടി ഏട്ടന് കല്ല്യാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് സാധനത്തിൻ്റെ ഓർഡർ എടുക്കാൻ വേണ്ടി വിളിച്ചതാണ് തക്കാളി വേണമായിരുന്നു ഒരു ഇരുപത് കെ ജി എത്രയുണ്ടിപ്പോൾ കിലോയ്ക്ക് എത്രയിനു കൊടുക്കും എനിക്ക് ഇരുപത്തഞ്ചിന് വേണം ആ ആ തക്കാളി ഇരുപത് കിലോ വേണം മുപ്പതാണോ ഞാൻ മറ്റവിടത്ത് ഞാൻ മറ്റവിടത്ത് വിളിച്ച് ചോദിച്ചിട്ടാമ്പം അവർ പറഞ്ഞു ഇരുപത്തെട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാൽ പറഞ്ഞ ഇരുപത്തെട്ടിന് തരാമെന്ന് കുറച്ച് കുറച്ചിട്ട് തരണം എന്താ വച്ചാൽ ഞാൻ കുറച്ചധികം എടുക്കുന്നുണ്ട് സാധനം മൊത്തത്തിൽ നിന്ന് അവിടെ നിന്നുതന്നെ വാങ്ങാൻ പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് കുറച്ചിട്ട് തരണം എനിക്ക് അല്ല അവരും അവരെ വളപ്പിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് അവർ മറ്റേ കടയും നടത്തുന്നുണ്ടവർ സ്വന്തമായിട്ട് കൃഷിയെല്ലാം ചെയ്യുന്നതാണ് പിന്നെ നിങ്ങളത് കുറച്ചടുത്തല്ലേ പറഞ്ഞിട്ട് ഞാനങ്ങനെ ചോദിച്ച് വിളിക്കാം വിളിച്ചത് കുറച്ച് ഡിസ്റ്റൻസ് കുറവല്ലെ പിന്നെ വീട്ടിലേക്ക് വേഗം എത്തിക്കാമല്ലോ എന്നുള്ള ഒരു രീതിയ്ക്ക് ഞാൻ

ആ പിന്നെ സാമ്പാർക്കൂട്ട് സാമ്പാർക്കൂട്ട് വേണം ആണോ ഒരു ആയിരം പേർക്കുള്ളത് വേണം ആ പിന്നേയും ആ വെള്ളരിക്ക വേണം പിന്നെ പായസത്തിനാക്കാനുള്ള സേമിയപ്പായസം ആക്കണം അല്ല നിങ്ങളെത്തിക്കണം അതിനാണ് ആ ആ ഈ ആ ആ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടോ ഞാനതിലേയ്ക്ക് ലിസ്റ്റ് ആയക്കാം ആ ശരി